ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങളെന്നു പറയുന്നത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് ബസ്സിൽ ഉപയോഗിച്ചുള്ള ഗതാഗത മാർഗ്ഗമാണ് കോമണായിയിട്ടുള്ള സാധാരണ വ്യക്തികൾ ഉപയോഗിക്കുന്നത് പിന്നെ ട്രെയിൻ ഗതാഗതവും കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പിന്നെ അധികം ആൾക്കാർക്കും ഇപ്പോൾ സ്വന്തമായി വാഹനങ്ങൾ അത് ബൈക്കാവാം കാറാവാം അവയൊക്കെ ഓരോരുത്തർക്കും ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് കുറച്ച് സൗകര്യപ്രദമായതും ചിലവ് കുറഞ്ഞതുമായ ഒരു യാത്രാരീതി എന്നു പറയുന്നത് ട്രെയിൻ യാത്രയാണ് അതു പക്ഷേ കുറേ വെല്ലുവിളികളും നേരിടന്നുണ്ട് എന്താണെന്ന് വച്ചാൽ നമുക്ക് ട്രെയിൻ സൗകര്യം മലയോര മേഖലകളിലേക്കൊന്നും ട്രെയിൻ സൗകര്യം ലഭ്യമാവുകയില്ല നമ്മളുടെ മലയാളികളെ സംബന്ധിച്ചെടുത്തോളം എല്ലാ മേഖലയും ഒരുപോലെയുള്ള മേഖലകളല്ല കുന്നും പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളുടെ കേരളത്തിലുടനീളമുണ്ട് പ്രധാനമായും രണ്ടു ജില്ലകളിലാണ് കുന്നും പ്രദേശങ്ങൾ അധികമായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ രണ്ടു ജില്ലകളിൽ നമ്മളുടെ ട്രെയിൻ സർവ്വീസ് നിലവിലില്ല അപ്പോൾ അവിടെ നമുക്ക് എത്തിപ്പെടുന്നതിന് നമുക്ക് പ്രധാനമായിട്ടുമുള്ള സഞ്ചാരമാർഗ്ഗം എന്നു പറയുന്നത് ബസ്സ് സൗകര്യം മാത്രമാണുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ആ ബസ്സ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ബസ്സിൽ കയറി മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ പക്ഷെ അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ട്രെയിൻ ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ബസ്സുമായി കംമ്പെയർ ചെയ്തു നോക്കുമ്പോൾ നമ്മളുടെ ട്രെയിനിന് എല്ലാ സ്ഥലങ്ങളിലും നിർത്താനുള്ള ഒരു സൗകര്യം ഒന്നുമില്ല അപ്പോൾ ചില യാത്രക്കാർക്ക് അപ്പോൾ അതു വച്ച് നോക്കുമ്പോൾ ബസ്സ് യാത്രയായിരിക്കും എളുപ്പം കാരണം ബസ്സിന് ഇന്ന മെയിൻ മെയിൻ സ്റ്റോപ്പുകളിലെല്ലാം നിർത്താനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ അവർക്ക് വേഗത്തിൽ കുറച്ചുകൂടി ട്രെയിനിനേക്കാളും വേഗത്തിലെത്താൻ പറ്റുക ബസ്സുപയോഗിച്ചായിരിക്കും പിന്നെ നമുക്ക് ഏറ്റവും വേഗത്തിലെത്താൻ പറ്റുന്നത് നമ്മളുടെ വായു ഗതാഗത മാർഗ്ഗമാണ് പക്ഷേ അതിൻ്റെ ചിലവേറെയായതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള മാർഗ്ഗം സ്വീകരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പുരോഗതിയും നല്ലതും എന്ന് തോന്നുന്നത് ബസ്സ് സൗകര്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ യാത്ര ഏറെയും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലും ഏറ്റവും ഏറ്റവും അനുയോജ്യമായത് ട്രെയിൻ ഗതാഗത മാർഗ്ഗമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് കൂടുതൽ താൽപര്യം ട്രെയിൻ യാത്രയിലാണ് ബസ്സ് യാത്രയുമായി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ